ആ കേൾക്കാം കേൾക്കാം ആരാ അ അ

അ ഉവ്വ അ അ എന്നാ മോഷണമുണ്ടായത് അ എന്നാണീ മോഷണം ഉണ്ടായത് ഒ ഇന്നലെയായിരുന്നല്ലേ ആ നിങ്ങളന്നെവിടെ എവിടെ പോയിരുന്നു അ ആണോ ആ ഉവ്വ

ഉവ്വ് മ്മ് ഈ സ്ഥലം എവിടെയാ ഈ സ്ഥലം എവിടെയാ ആ നിങ്ങളെങ്ങോട്ടാ പോയിരുന്നത് ഓ വിവാഹത്തിന് പോയതായിരുന്നല്ലേ ആ അപ്പോൾ ഇത് സംഭവിച്ച് കഴിഞ്ഞിട്ട് നമുക്കാരെയെങ്കിലും സംശയമുണ്ടോ

ആ ഉവ്വവ്വ ആ ആ ഉവ്വവ്വ

എത്രായിരം രൂപയുടെ സാധനം പോയിക്കാണും ഉവ്വ സ്വർണ്ണവും മറ്റു സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടായിരിക്കും അല്ലേ ടി വി യോ അപ്പോൾ ആരെയും സംശയം ഇല്ല നിങ്ങൾക്ക് അല്ലേ ഇല്ലില്ല അവിടെ മറ്റെന്തെങ്കിലും തെളിവുകളെന്തെങ്കിലും നമുക്ക് ഉണ്ടോ സി സി ടി വി ഉണ്ടോ സി സി ടി വി ഉണ്ടോ അവിടെ നമുക്ക് കാണാൻ ഇല്ലേ ആ ഇപ്പം ആ അതുണ്ടെങ്കിൽ നമുക്കൊരു ബലമായിരുന്നു അ പിന്നെ ഇത് നമ്മളെന്താ പോലീസ് സ്റ്റേഷൻലൊക്കെ അറിയിച്ചിട്ടുണ്ടോ മ്മ് നമ്മൾ പോലീസ് സ്റ്റേഷൻല് അറിയിക്കണേ ആ പോലീസിൽ അറിയിച്ചാലേ എഫ് ഐ ആർ ഇടാൻ പറ്റുള്ളൂ ഏ അപ്പോൾ എഫ് ഐ ആർ ഇട്ടിട്ട് വന്നാലേ നമുക്ക് കേസ് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ആ അപ്പോൾ നമുക്ക് നമ്മൾ പരാതി അവിടെ കൊടുത്ത് അവിടുന്ന് അന്വേഷണം വരണം ആ അങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ കോപ്പിയുണ്ടല്ലോ പരാതി കൊടുത്തതിൻ്റെ കോപ്പി അ ആ കോപ്പിയായിട്ടാണ് എൻ്റെയടുത്തേക്ക് വരേണ്ടത് എനിക്കത് പഠിച്ചിട്ട് വേണമല്ലോ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് എ മ്മ് ആ റിട്ടേൺൻ്റെ പോലീസ് സ്റ്റേഷൻൽ കൊടുക്കണം എന്നിട്ടതിൻ്റെ പേപ്പറ് വേടിക്കണം മ്മ് മ്മ് ആ എന്നിട്ട് എന്നെ വന്നു കാണാൻ വരിക എന്നാൽ ശരി ആയിക്കോട്ടെ അ ശരി ആട്ടെ